ഞാൻ രണ്ട് സ്കൂൾ ഒന്നു മുതൽ ഏഴു വരെ ഒരു സ്കൂളിലും എട്ടു മുതൽ പ്ലസ്ടു വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത് പിന്നീട് കോളേജിൽ മൂന്ന് മൂന്ന് വർഷം കാലഘട്ടം പഠിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് സ്കൂളിലും കോളേജിലും പഠിച്ചിട്ടുള്ളതാണെങ്കിലും എല്ലാ എല്ലാ അധ്യാപകരും നല്ല വിദ്യാസമ്പന്നരും അതുപോലെ നല്ല ടീച്ചേഴ്സും സാറുമാരും ആയിരുന്നു ഒരുപാട് ഒരുപാട് വിഷയങ്ങൾ പഠിപ്പിച്ച ഒരുപാട് ആൾക്കാർ ഉണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സ് സോഷ്യൽ ഇംഗ്ലീഷ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മലയാളത്തിൽ ആണെങ്കിൽ അടിസ്ഥാന പാഠാവലി കേരള പാഠാവലി എന്നിങ്ങനെ രണ്ട് വിഷയങ്ങളും പിന്നെ അതുപോലെ ഐ ടി ഇൻഫർമാറ്റിക്ക് ടെക്നോളജി കമ്പ്യൂട്ടറും ഉണ്ടായിരുന്നു ഈ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ച എല്ലാ ടീച്ചേർസും അടിപൊളി ടീച്ചേർസ് ആയിരുന്നു ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് നല്ല അറിവുകളും അതുപോലെ നല്ല രീതിയിൽ ഹിന്ദി അത് ഹിന്ദി വേറേ മലയാളം പോലെയല്ല വേറെത്തന്നെ ഒര് ലാംഗ്വേജ് ആയിരുന്നു എന്ന് എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ പഠിപ്പിച്ച് തരികയും നല്ല അറിവ് പകർന്ന് തരികയും തെരുന്ന നല്ല ടീച്ചേർസ് ആയിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് നല്ല അടിപൊളി അധ്യാപകരായിരുന്നു അന്നും ഇന്നും കണ്ടാൽ നല്ല നല്ല ഒരു സ്ട്രിക്റ്റാണെങ്കിൽപ്പോലും പഠിപ്പിക്കുമ്പോൾ സ്ട്രിക്റ്റാണെങ്കിൽപ്പോലും നല്ല ടീച്ചേഴ്സും പിന്നീട് കാണുമ്പോൾത്തന്നെ വന്ന് സംസാരിക്കയും ഒക്കെ ചെയ്യുന്ന നല്ല ടീച്ചേർസും നല്ല നല്ല അടിപൊളി ടീച്ചേർസും സാറുമ്മാരും ആയിരുന്നു അതുപോലെ നമ്മളെ മീറ്റിങ്ങിന് പേരെന്റ്സ് വരുന്നതാണെങ്കിൽ പേരെന്റ്സ് പേരൻസിനെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യുകയും നല്ല നല്ല രീതിയിൽ കാണുകയും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന ചെയ്യുന്ന ടീച്ചേർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്